കേരള സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക പൈതൃകം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഒരുപാട് ആർട്ട് ഗാലറികളും മ്യൂസിയങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട് അവയിൽ ചിലതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മ്യൂസിയം ഓഫ് കേരള ഹിസ്റ്ററി കൊച്ചിയിലാണ് ഇത് സ്ഥിതിചെയ്യുന്നത് ഈ മ്യൂസിയത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് മൂന്ന് ഭാഗങ്ങളും വിവിധ കെട്ടിടങ്ങളിലായാണ് ക്രമീകരിച്ചിട്ടുള്ളത് കേരള ചരിത്രത്തെക്കുറിച്ച് ഈ മ്യൂസിയം ഒരുപാട് അറിവുകൾ നൽകുന്നുണ്ട് രണ്ടാമത്തേത് സ്ട്രിങ്സ് മ്യൂസിയം അല്ലെങ്കിൽ മ്യൂസിയം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കൊച്ചിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ ആകമാനമുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രമെൻറ്റ്സാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അവയുടെ ഉത്പത്തിയും കാലക്രമേണ അവയിലുണ്ടായിട്ടുള്ള പരിണാമങ്ങളും ഇവിടെ നിന്ന് മനസ്സിലാകുന്നു മൂന്നാമത്തേത് നേപ്പിയർ മ്യൂസിയം തിരുവന്തപുരത്താണ് ഇത് സ്ഥിതിചെയ്യുന്നത് കോവളം കേരളത്തിൻ്റെ പൈതൃകമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നേപ്പിയർ മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അടുത്തത് കുമരകം ക്രാഫ്റ്റ് മ്യൂസിയം കുമാരകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് പുരാവസ്തുക്കൾ തടിയിലുണ്ടാക്കിയ വസ്തുക്കൾ പെയിൻറ്റിങ്ങുകൾ പോർട്രൈറ്റ്കൾ എന്നിയവയൊക്കെയാണ് ഇവിടെ പ്രദർശ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവയുടെയൊക്കെ പ്രവർത്തന സമയം ഇരുപത്തി നാല് മണിക്കൂറാണ് അടുത്തത് ഹിൽ പാലസ് മ്യൂസിയം കൊച്ചി ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് കൊച്ചി തൃപ്പൂണിത്തുറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ആറുമണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനസമയം അടുത്തത് കേരള ഫോൾക്ലോർ മ്യൂസിയം കൊച്ചിയിലാണ് ഇത് ചെയ്യുന്നത് പുരാവസ്തുക്കൾ ഹിസ്റ്റോറിക്കലും കൾച്ചറൽ ആർട്സ് ഇതൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അടുത്തതായി രവി കരുണാകരൻ മെമ്മോറിയൽ മ്യൂസിയം ആലപ്പുഴ ബെറ്റി കരുണാകരനാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് അവരുടെ ഹസ്ബൻറ്റായ രവി കരുണാകരൻ്റെ ഓർമ്മക്ക് വേണ്ടി ബെറ്റി കരുണാകരൻ നിർമ്മിച്ചതാണ് ഈ മ്യൂസിയം രവി കരുണാകരൻ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന ഒരു കയർ വ്യവസായി ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തനസമയം അടുത്തത് ബേ ഐലൻഡ് ഡ്രിഫ്റ്റഡ് മ്യൂസിയം കുമരകം ലോകപ്രസ്തരായ നിരവധി ചിത്രകാരന്മാരുടെ പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അടുത്തയായി ഇൻഡോ പോർച്ചുഗീസ് മ്യൂസിയം കൊച്ചി ഇന്ത്യൻ കലകളിലും വാസ്തു വിദ്യയിലും പോർച്ചുഗീസുകാരുണ്ടാക്കിയ സ്വാധീനം പോർച്ചുഗീസുകാർ നടത്തിയ സംഭാവനകൾ അവർ കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ പോർച്ചുഗീസുകാരുടെ ചരിത്രം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തന സമയവും ഇരുപത്തി നാല് മണിക്കൂറാണ് അടുത്തത് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയൽ ഈ മ്യൂസിയത്തിനെ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം എന്നും അറിയപ്പെടുന്നുണ്ട് എല്ലാ ദിവസം ദിവസങ്ങളിലും ഈ മ്യൂസിയം പ്രവർത്തനത്തിന് സജ്ജമാണ് വായനാടിൻ്റെ ചരിത്രം പൈതൃകം കല കൽ പ്രതിമകൾ ഇവയെക്കുറിച്ചുള്ള അറിവുകളാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുന്നത് അടുത്തതായി അറക്കൽ മ്യൂസിയം കണ്ണൂർ ജില്ലയിലാണ് ഇത് സ്ഥിതിചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ സിറ്റിയുടെ അടുത്തായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് അറക്കൽ രാജകുടുംബം കേരളത്തിലെ ഏക മുസ്സ്ലീം രാജകുടുംബമാണ് അറക്കൽ രാജകുടുംബത്തിൻ്റെ ചരിത്രം അറക്കൽ രാജാവായിരുന്ന അറക്കൽ അലി രാജയുടെ ചരിത്രം ഇവയെക്കുറിച്ചൊക്കെയാണ് അറക്കൽ മ്യൂസിയം നമുക്ക് അറിവ് നൽകുന്നത് അടുത്തയായി പഴിശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം കോഴിക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ദിവസങ്ങളിലും ഇത് പ്രവർത്തന പ്രവർത്തിക്കുന്നുണ്ട് പഴശ്ശിരാജയുടെ രാജ ഭരണവും അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആയുധങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജകുടുംബത്തിൻ്റെ ചരിത്രം ഇവയെക്കുറിച്ചുള്ള അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നത് അടുത്തതായി ടി മ്യൂസിയം മൂന്നാറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിൽ എങ്ങനെ തേയിലക്കൃഷി തുടങ്ങി തേയിലക്കൃഷിയുടെ ചരിത്രം ഇവയൊക്കെയാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അടുത്തതായി സുനിൽസ് വാക്സ് മ്യൂസിയം തിരുവനന്തപുരത്താണ് ഇത് സ്ഥിതിചെയ്യുന്നത് ഇരുപത്തി നാല് മണിക്കൂറും ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ പ്രശസ്തരായ രാഷ്ട്രീയക്കാരുടെയും മറ്റ് മഹാരഥന്മാരുടെയും മെഴുക്ക് പ്രതിമകളാണ് ഇവിടുത്തെ കാഴ്ച അടുത്തതായി കേരള സ്റ്റേറ്റ് മ്യൂസിയം ആൻഡ് സൂ തൃശ്ശൂർ കേരള ചരിത്രത്തിൻ്റെ കേരള പൈതൃകത്തിൻ്റെ ഇവയെക്കുറിച്ചുള്ള നമ്മളെ അറിവുകൾ പിന്നെ ഒരു മൃഗശാലയുമാണിവിടെ പ്രവർത്തിക്കുന്നത് അടുത്തയായി ഡിസ്ക്സ് ആൻഡ് മഷീൻസ് സണ്ണി ഗ്രാമഫോൺ മ്യൂസിയം ഒരുപാട് ഗ്രാമഫോൺ റെക്കോർഡുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത് പലതരത്തിലുള്ള ഗ്രാമഫോണുകളൾ അവയിൽ കാല ക്രമേണ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അവയെല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അടുത്തതായി ഇൻറ്റർനാഷണൽ കൊയർ മ്യൂസിയം ആലപ്പുഴയിലാണ് ഇത് സ്ഥിതിചെയ്യുന്നത് കേരളത്തിലെ കയർ വ്യാവസായത്തിൻ്റെ ചരിത്രം കയർ വ്യാവസായത്തിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളർച്ചകൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്തതായി ദ ഗ്രേ ബുക്ക് മ്യൂസിയം ആൻഡ് ആർക്കൈവ്സ് കൊച്ചി സ്റ്റാൻലിയുടെ ഓർമ്മക്ക് വേണ്ടിയിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതിചെയ്യുന്നത് പുരാതന ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ നിന്ന് സാധിക്കുന്നു അടുത്തതായി കോയിക്കൽ പാലസ് നെടുമങ്ങണ്ട നെടുമങ്ങാടാണ് ഈ പാലസ് സ്ഥിതിചെയ്യുന്നത് തിരുവന്തപുരത്താണ് ഇത് വേണാട് രാജകുടുംബത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പതിനാറാം നൂറ്റാണ്ടിൽ വേണാട് രാജകുടുംബമാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത് അടുത്തയായി കൃഷ്ണപുരം പാലസ് കായംകുളത്താണ് ഇത് സ്ഥിതിചെയ്യുന്നത് കായംകുളം ആലപ്പുഴയിലാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡ വർമ്മയാണ് കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് അടുത്തതായി ആർക്കിയോളജിക്കൽ മ്യൂസിയം തൃശ്ശൂർ മറ്റൊന്ന് കേരള മ്യൂസിയം ഓഫ് ഹിസ്റ്ററി ആൻഡ് ഹെറിറ്റേജ് തിരുവനന്തപുരം അടുത്തയായി കൃഷ്ണ മേനോൻ മ്യൂസിയം കോഴിക്കോട് കോഴിക്കോട് ജില്ലയിൽ നിന്നും ഏഴു കിലോ മീറ്റർ മാറിയാണ് ഇത് സ്ഥിതിചെയ്യുന്നത് ഇതൊരു ആർട്ട് ഗ്യാലറിയാണ് അടുത്തയായി ശക്തൻ തമ്പുരാൻ പാലസ് ഇത് തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ശക്തൻ തമ്പുരാൻ്റെ രാജകുടുംബത്തെ പറ്റിയും രാജ ഭരണത്തെ പറ്റിയുള്ള അറിവുകളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഇതും ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയമാണ് മറ്റുചില മ്യൂസിയങ്ങളാണ് ദീപാഞ്ജലി ലാമ്പിൻ മ്യൂസിയം കോഴിക്കോട് ഇത് രാവിലെ ആറുമണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് പ്രവർത്തിക്കുന്നത് അടുത്തതായി ശങ്കർ മെമ്മോറിയൽ മ്യൂസിയം കൃഷ്ണപുരം കൃഷ്ണപുരത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇതും എല്ലാ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയമാണ് അടുത്തയായി മട്ടാഞ്ചേരി പാലസ് കൊച്ചിയിലാണ് മട്ടാഞ്ചേരി പാലസ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയുടെ ചരിത്രം കൊച്ചിയിൽ ആദ്യ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളർച്ചകൾ കൊച്ചിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളും അവിടെയുള്ള ആൾക്കാരുടെയും ചരിത്രം ഇതൊക്കെയാണ് മട്ടാഞ്ചേരി പാലസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ അടുത്തയായി ആൻറ്റിക് മ്യൂസിയം കൊച്ചി ഇത് ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു മ്യൂസിയമാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴക്കമുള്ള ചിത്രങ്ങൾ പ്രതിമകൾ പുസ്തകങ്ങൾ കല വാസ്തുവിദ്യ ഇവയുടെ എല്ലാം അവശിഷ്ടങ്ങള് ഇവയൊക്കെയാണ് ആൻറ്റിക് മ്യൂസിയം കൊച്ചിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ ഇത്തരത്തിൽ ഒരുപാട് മ്യൂസിയങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ജനങ്ങളിലേക്ക് എത്തിക്കാനും പുതുതലമുറയിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്